തീർച്ചയായും ഞാൻ സോഷ്യൽ വർക്ക് വിദ്യാർഥിയായിരുന്നു പീ ജി സോഷ്യൽ വർക്കിൽ കംപ്ലീറ്റ് ചെയ്തതിനുശേഷം ജെ ആർ എഫ് കിട്ടിയത് കാരണം പിന്നെ ഗവേഷണത്തിലോടുള്ള എൻ്റെ അധികമായ താല്പര്യം കൊണ്ടും ഞാൻ ഗവേഷണം ഗവേഷണത്തിന് പോയതാണ് അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നത് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതായത് എൻ്റെ പീ ജി ജീവിതം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കഴിഞ്ഞതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഗവേഷണ വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഞാൻ ഇപ്പോൾ ഗവേഷണം നടത്തുന്നത് ലോയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിലാണ് എൻ്റെ ഗവേഷണം നടക്കുന്നത് അവിടുത്തെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് അപ്പോൾ എൻ്റെ ഗൈഡ് എന്ന് പറയുന്നത് ഡോക്ടർ ഫ്രാൻസിന പി എക്സ് ആണ് അദ്ദേഹം ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ലോയോള കോളേജിലെ അപ്പോൾ ലോയോള കോളേജ് നമുക്ക് കോളേജിനെ പറ്റിത്തന്നെ ആദ്യം സംസാരിച്ചു തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു വളരെയധികം സോഷ്യൽ വർക്കിനെയും അതുപോലെത്തന്നെ കുട്ടികളിലെ പ്രതിബദ്ധതേയും പ്രതിബദ്ധതേയും വളരെ അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജ് ആണ് അതു തന്നെയാണ് എന്നെ ഈ ഗവേഷണത്തിലോട് തിരിച്ചുവിടാനൊരു കാരണമായതും അപ്പോൾ ഗവേഷണ വിഷയം സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതുതലമുറയിൽ കാണുന്ന സ്ക്രീൻ അഡിക്ഷനെ പറ്റിയിട്ടാണ് ഞാൻ ആദ്യം എടുത്താലോ എന്ന് എൻ്റെ ചിന്ത പോയത് പക്ഷേ അങ്ങനെ നമ്മൾ എടുത്ത് വന്നപ്പോഴത്തേക്കും അവിടെ നമ്മളൊരു ഇൻ്റർവെൻഷൻ കൊടുത്തതിൻ്റെ എഫക്റ്റീവ്നെസ്സ് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് അങ്ങനെ ഞാൻ കുറേ കൂടി മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കുവാണ് കുട്ടികളിൽ ഈ സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ളത് ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലായത് കൂടാതെ തന്നെ അതിനെപ്പറ്റി ഒത്തിരി പഠനങ്ങൾ നടക്കുന്നുമുണ്ട് അപ്പോൾ അതിനായി ഞാൻ കുറച്ചുകൂടി വായിച്ചൊക്കെ വന്നപ്പോഴാണ് എൻ്റെ ഉള്ളിലെ ജീറിയാട്രി എന്നുള്ള അതായത് വൃദ്ധരുവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ തുടർന്ന് ഞാൻ നിരവധി നമ്മുടെ ഈ സോഷ്യൽ വർക്കിൽ പി ജി സമയത്ത് തന്നെ ഫീൽഡ് വർക്കിൻ്റെ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഏത് ടോപ്പിക്കിനോടാണ് കുറച്ചുംകൂടി ഒരു ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് അപ്പോൾ ആ സമയത്ത് ഫീൽഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വൃദ്ധസദനങ്ങളിൽ പോകാനും വൃദ്ധരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും പറ്റിയത് പ്രകാരം ഞാനെൻ്റെ ഗവേഷണ വിഷയം അവസാനം ജീറിയാട്രിക് സോഷ്യൽ വർക്ക് തന്നെ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു അതിനെ തുടർന്ന് ജീറിയാട്രിക് സോഷ്യൽ വർക്കും ഈ പറയുന്നപോലെത്തന്നെ ഒത്തിരി പഠനങ്ങൾ നടന്നുവരുന്ന ഒരു മേഖലയാണ് ക്വാളിറ്റി അവരുടെ ജീവിതത്തിലെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാം അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം അതിന് ഗവൺമെൻറ്റും ഇൻഡിവിജ്വൽസും എത്രമാത്രം ചേർന്ന് വർക്ക് ചെയ്യണം ഇതിനൊക്ക പറ്റിയിട്ടുള്ള ഒത്തിരി സ്റ്റഡികൾ നടന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻറ്റെ ഒരു കോൺസെപ്റ്റ് ആയ ഹെൽത്തി എയ്ജിങ്ങിനെ പറ്റി മനസ്സിലാക്കുന്നത് ഈ ഹെൽത്തി എയ്ജിങ് നമ്മുടെ വെസ്റ്റേൺ നമ്മുടെ കൺട്രീസ് ഒത്തിരി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ എത്രത്തോളം ആ ഹെൽത്തി എയ്ജിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ആൾക്കാർ ബോധവാന്മാരാണെന്ന് എനിക്ക് സംശയമുണ്ട് ഈ ഹെൽത്തി എയ്ജിങ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് എത്രമാത്രം അതായത് വൃദ്ധരിൽ അവർക്ക് എത്രമാത്രം അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സ്വന്തമായി അവർക്കത് ചെയ്യാൻ പറ്റുന്നു അതായത് അവർക്കുള്ളിലെ ഫംഗ്ഷണൽ എബിലിറ്റി അവരുടെ വെല്ബിയിങ്ങ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എത്രമാത്രം ആ ഫംഗ്ഷണൽ എബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നോക്കുന്നത് ഇതിൽ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ആസ്പെക്റ്റ്സ് ആണ് വരുന്നത് ഫംഗ്ഷണൽ എബിലിറ്റി ഇൻട്രൻസിക് കപ്പാസിറ്റി അവരുടെ എൻവെയോൺമെൻറ്റ് ഇനി ഇതിൽ തന്നെ ബാക്കി ഡൊമയിൻസിൽ വരുന്ന കാര്യം നമ്മൾ മറ്റുള്ളവർ അവർക്ക് ചുറ്റുമുള്ളവർ അവരോട് എങ്ങനെ ആക്ട് ചെയ്യുന്നു അത് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു നമുക്ക് അവരുടെ ഈ ഒരു പ്രോഗ്രാംസിൽ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് നമ്മൾക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് ചേയ്ഞ്ച് ചെയ്യാൻ പറ്റും അവരുടെ എൻവിയോൺമെൻറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള നിരവധി ഫാക്ടേസ് ആണ് ഇതിൽ വരുന്നത് അപ്പം ഇതെല്ലാം കൂടി ഒരു അംബ്രലാ ടെം ഹെൽത്തി എയ്ജിങ് എന്നുള്ള ഒരു അംബ്രല്ല ടെമിലാണ് നമ്മൾ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനാൽ തന്നെ എൻ്റെ ഒരു ഐഡിയാ എന്ന് പറയുന്നത് നമ്മൾ റെസിഡൻഷ്യൽ ഹോംസില് പ്രധാനമായും നമുക്ക് അറിയാം ഇവർക്ക് ഓൾഡ് ഏജ് ഹോംസും അതുപോലെത്തന്നെ റിട്ടയർമെൻറ്റ് ഹോംസും പ്രൈവറ്റും ഗവൺമെൻറ്റിൻ്റെ കീഴിലൊക്കെ ഒത്തിരി എൻ ജി യോസ് ഒക്കെ ഇങ്ങനെയുള്ള ഓൾഡ് ഏജ് ഹോംസ് നടത്തിവരുന്നുണ്ട് അപ്പം അവർ അങ്ങനെ നടത്തുന്ന സമയത്ത് അത് എത്രത്തോളം ഇവർക്ക് എഫക്റ്റീവ് ആയിട്ട് ഹെൽത്തി എയ്ജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ സ്റ്റഡീ എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ടും ഒരു ഒറ്റ ഓൾഡ് ഏജ് ഹോമിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആയിരിക്കും അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിൽ ആദ്യം നമ്മൾ പോയി ഡേറ്റ കളക്റ്റ് ചെയ്യുന്നു ഇവരുടെ ഹെൽത്തി എയ്ജിങ് എത്രത്തോളമുണ്ടെന്ന് നമ്മൾ എക്സസസ് ചെയ്യുന്നു ശേഷം മനസ്സിലാക്കിയതിനു ശേഷം നമ്മളൊരു ഇൻ്റെർവെൻഷൻ ഡിസൈൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നു ആ ഇൻ്റെർവെൻഷൻ അവരിലെ ഹെൽത്തി എയ്ജിങ് കൂട്ടാനായിട്ടുള്ള ഇൻ്റർവെൻഷൻ ആയിരിക്കും അതിനുശേഷം ഇൻ്റെർവെൻഷൻ കൊടുത്തതിനുശേഷം നമ്മൾ ഇതിൻ്റെ എഫക്ടീവ്നെസ്സ് മെഷർ ചെയ്യാനായിട്ട് ഒന്നുങ്കൂടി പോയി ഡേറ്റ കളക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇനിഷ്യൽ സ്റ്റേജിലും ഫൈനൽ സ്റ്റേജിലുമുണ്ടായ ഡിഫറൻസ് അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഈയൊരു ഇൻ്റെർവെൻഷൻ പാക്കേജ് ആയിട്ട് ഡിസൈൻ ചെയ്ത് ഗവൺമെൻറ്റിനും ബാക്കിയുള്ള സ്റ്റേ ഹോൾഡേഴ്സിനും കൊടുക്കാന്നുള്ളതാണ് പ്ലാൻ അപ്പോൾ അങ്ങനെ ഒരിടത്ത് പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എല്ലായിടത്തും ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് അതിൻറ്റെ ഒരു എഫക്റ്റീവ്നെസ്സ് കൂട്ടി നമ്മുടെ ഈ ഓൾഡ് ഏജ് എന്നുള്ള ഒരു ഏയ്ജ്കാരെ നമ്മൾ എപ്പോഴും നമ്മൾ അവരെ തഴയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ആണ് കാരണം എന്താണ് അവരുടെ ആ ഒരു പ്രോഡക്റ്റിവ് ഏയ്ജ് കഴിഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് അവർ മരണം കാത്തിരിക്കുന്നവരാണ് എന്നൊക്കെ ഐഡിയ ഉള്ളവരാണ് പക്ഷെ അതിൽനിന്നൊക്കെ മാറിയിട്ട് അവർക്ക് അവരുടെ ഉള്ളിലും പൊട്ടൻഷ്യൽ ഉണ്ട് അവരും ഇൻറ്റിവിഡ്യൂൽസ് ആണ് അവർക്കും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് അവരെ തന്നെ തിരിച്ചറിയുകയും തിരിച്ചറിയിപ്പിക്കുകയും അതുപോലെത്തന്നെ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻറ്റെ ഒരു റിസേർച്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയാ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അറിയാം ഈ ഒരു റിസേർച്ച് എന്ന് പറയുന്നത് ഒരു അഞ്ചുവർഷം നീണ്ടുനിൽക്കുന്ന പ്രകൃതിയാണ് അപ്പം ഈ അഞ്ചു വർഷത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവരുടെ ഒരു വെൽബീയിങ്ങിന് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അയ്ഡിയ